ഹലോ ഹലോ ആ പറഞ്ഞോളൂ മാഡം ആ ആയിക്കോട്ടെ മാഡം പറഞ്ഞോളൂ എന്താണ് ആ ഓക്കെ മാഡം പറഞ്ഞോളൂ ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത് നമുക്ക് ഇപ്പം മുന്നാറിൽ അഡ്വഞ്ചർ പ്ലേസ് എന്ന് പറയാനായിട്ട് അങ്ങനെ അധികം ഒന്നും ഇല്ല മാഡം പിന്നെ നമുക്ക് ചെയ്തുതരാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇവിടെ ബംജി ജമ്പിംഗ് ഒക്കെ ഉണ്ട് പിന്നെ റോപ്വേ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും വരുന്നത് അത് നമുക്ക് അഡ്വഞ്ചർ ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ ചെയ്ത് വരുന്നത് അപ്പോൾ അത് മാഡത്തിന് വേണമെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്തുതരാം പിന്നെ ട്രക്കിംഗ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ അതും നമുക്ക് നോക്കി ചെയ്തുതരാൻ പറ്റും മാഡം ആ നമ്മൾ തന്നെ അറേഞ്ച് ചെയ്തുതരും സ്റ്റേ മാഡം റൂംസ് ഒന്നും നോക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഒക്കെ അറേഞ്ച് ചെയ്തുതരാം ഫ ക്യാഷിൻ്റെ ഇതൊക്കെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഫണ്ടിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മാഡത്തിൻ്റെ ബഡ്ജറ്റിന് അനുസരിച്ച് എനിക്ക് ചെയ്തുതരാൻ പറ്റും മ് ആ ഓക്കെ മാഡത്തിന് എങ്ങനെയാണ് സ്റ്റാർ പ്രോപ്പർട്ടി അങ്ങനെ എന്തെങ്കിലും വേണോ ആ ഇഷ്ടംപോലെ ഉണ്ട് മാഡം മൂന്നാർ ഒക്കെ ഒരുപാട് സ്റ്റാർ പ്രോപ്പർട്ടികൾ ഉണ്ട് നമുക്ക് അതിൽ ഏതെങ്കിലും അറേഞ്ച് ചെയ്തുതരാൻ പറ്റും ആ പിന്നെ മാഡത്തിന് എത്ര മെമ്പേഴ്സ് ഉണ്ടാവും എങ്ങനെ മാഡം ആ പന്ത്രണ്ട് പേരേ ഉള്ളൂ അല്ലേ അപ്പോൾ പ് ഫുഡ് മാഡം അത്യാവശ്യം കോ അപ്പം സ്റ്റാർ പ്രോപ്പർട്ടി ഒക്കെ ആവുമ്പം ഫുഡ് ഒക്കെ അവിടുന്ന് അവർ പ്രൊവൈഡ് ചെയ്യും മാഡം ആ നല്ല ഫുഡ് ആയിരിക്കും

ക്യാബ് മാഡത്തിന് എങ്ങനെയാണ് മാഡം വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ അറേഞ്ച് ചെയ്തുതരണമെങ്കിൽ അങ്ങനെ ചെയ്ത് തരാം പിന്നെ പന്ത്രണ്ട് പേർ എന്നല്ലേ പറഞ്ഞത് അപ്പം നമുക്ക് ട്രാവലർ ഒക്കെ വേണ്ടി വരും മാഡം വരുന്നതിന് രണ്ട് ദിവസം മുമ്പെങ്കിലും വിളിച്ചാലേ നമുക്ക് ക്യാബും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മാഡം അത് നോക്കിയിട്ട് ക്യാബ് വേണമെങ്കിൽ ഞങ്ങളോട് ഒന്ന് നേരത്തെ കോൺടാക്ട് ചെയ്ത് പറയണം പിന്നെ എത്തുന്ന ടൈമും കാര്യങ്ങളൊക്കെ കൂടെ പറയുവാണെങ്കിൽ ഞങ്ങൾ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്തുതരാം ഓക്കെ അല്ലേ മാഡം എന്തെങ്കിലും കുഴപ്പം ഉണ്ടോ ഇനി എന്തെങ്കിലും അറിയാൻ ഉണ്ടോ ആ ഓക്കെ മാഡം വരുന്നതിന് ഒരു രണ്ട് ദിവസം മുമ്പ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ മാഡം താങ്ക് യൂ